മലയാള സിനിമകളിൽ മലയാള സിനിമയിൽ തന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിലെ ഭാവനയുടെ ചുരിദാർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത് അപ്പോൾ അത് അത് അതൊന്ന് പിന്നെ അടുത്ത് നസ്രിയയുടെ ചുരിദാർ ടൈപ്പ് പിന്നെ അതുപോലെ ബോളിവുഡിൽ എന്ന് പറഞ്ഞാൽ ആലിയാ കട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിയ ആ ഒരിത് ആലിയ ഭട്ടിൻ്റെ അങ്ങനെ ആലിയ കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചുരിദാറിൻ്റെ ഇത് അതും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ സമാനമായ വസ്ത്രം ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊന്ന് രണ്ടെണ്ണം തന്നെ വളരെ രീതിയിൽ നല്ല വിജയം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് മേരിക്കൊരു കുഞ്ഞാട് എന്ന സിനിമയിലെ ആ ഭാവനയുടെ ആ ചുരിദാറ് ആ ഒരു പാട്ടിലൊക്കെയുള്ള ആ ചുരിദാർ ഒന്ന് രണ്ടെണ്ണം ഞാൻ എൻ്റെ കുട്ടികൾക്ക് തയ്ച്ച് കൊടുക്കുകയും അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും അത് കണ്ട് എനിക്കും അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ അതുപോലെത്തന്നെ പുറത്ത് ഇങ്ങനെ കണ്ടവർ അത് ആര് തയ്ച്ചത് എന്ന് ചോദിച്ചിട്ട് കൊണ്ട് വന്ന് തുണിയെടുത്തുകൊണ്ട് വന്ന് തന്നിട്ട് അതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ച് അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം ഇപ്പോഴത്തെ പുതിയ മോഡൽ ആയ ആലിയ കട്ട് ചുരിദാറ് അതും അതുപോലെ തന്നെയാണ് തുണിയെടുത്തിട്ട് അത് നോക്കി ഞാൻ ട്രൈ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു അത് ആദ്യം അത്ര നല്ലതായിട്ട് വന്നില്ല എന്നാലും പിന്നെയും പിന്നെയും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ നല്ല രീതിയിൽ അത് തയ്ച്ചെടുക്കാൻ സാധിച്ചു അങ്ങനെ അത് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോവുകയും ഒത്തിരി പേർ എന്നിട്ട് അതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ഒത്തിരി പേർക്ക് അങ്ങനെ ആലിയ കട്ടും അങ്ങനത്തെ പുതിയ രീതിയിലുള്ള ഡ്രെസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അങ്ങനെ അത് ആലിയ കട്ടിൻ്റെ ആ ചുരിദാർ സ്റ്റിച്ച് ചെയ്തു കൊടുത്തു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇപ്പം തന്നെ ഒരുപാട് പേർ ഓരോ സിനിമേടെ ഓരോ മോഡല് കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഒത്തിരി പേർ ആ കുഞ്ഞു കുട്ടികൾക്കായാലും ഓരോ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട് ബ്ലൗസ് ബ്ലൗസ് ആയാലും ബ്ലൗസിൻ്റെ ബാക്ക് കഴുത്തായാലും ഓരോ സിനിമേൽ കാണുന്നത് പോലെ ബോളിവുഡിൽ ഒരോ അതുപോലെ ഒക്കെ ഒന്ന് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ ആയ ചുരീ ബോട്ടോമ് അങ്ങനെത്തെ ഇതൊക്കെ ഇത് കാണുമ്പഴും പിന്നെ സ്ട്രൈറ്റ് പാൻറ്റ് അതും സിനിമേലും സീരിയലിൽ തന്നെയും ഇപ്പോൾ ഓരോരോ കഥാപാത്രങ്ങൾ മൃദുല വിജയ് ഇടുന്നത് പോലെത്തെ ഉള്ള ആ പാൻറ്റും അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ട് ശ്രമിച്ച് നോക്കി അതൊക്കെ സ്ട്രൈറ്റ് പാൻറ്റും സിഗരറ്റ് പാൻറ്റുവൊക്കെ നല്ല രീതീല് ചെയ്യാൻ ആദ്യം ഒക്കെ ഇത് നന്നായിട്ട് വരാതെയും പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് ഇപ്പം നല്ല രീതിയിൽ ചെയ്യാനും പറ്റുന്നുണ്ട്